ഈ കാലാവസ്ഥയും സന്ദർഭവുമൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മളെപ്പോഴും സഞ്ചാരികൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകാൻ അത് നമ്മുടെ കൂടെ ഉള്ളവരുടെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം പക്ഷെ മാർച്ചിൽ മാർച്ചിൽ വെക്കേഷനൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഫ്രീ ആകുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ആ സമയത്തായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ആ സമയത്ത് വരുന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ ഒക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ള സമയമാണ് ആ പക്ഷെ മാർച്ച് സമയത്ത് നമുക്ക് കാണാൻ കാണാൻ കുറേ ഉത്സവങ്ങൾ ഒക്കെ ഉണ്ട് പാലക്കാട് നെന്മാറ വല്ലങ്കി വേലയുണ്ട് വടക്കുന്തറ വേല മണപ്പുള്ളിക്കാവ് വേല അങ്ങനെ കുറേ വേലകളുണ്ട് വേലകൾക്ക് ആനകൾ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ ആ മാർച്ച് സമയങ്ങളിലൊക്കെ വരണം മാർച്ച് പിന്നെ ആ മാർച്ച് സമയത്ത് നമുക്ക് കുറേ ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതു കഴിഞ്ഞാൽ പിന്നെ ഈ മഴക്കാലത്തൊക്കെ വരുകയാണെന്ന് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ നമ്മുടെ ഈ മലമ്പുഴ ഡാമക്കെ തുറക്കുന്ന ഒരു സീനുണ്ട് വെള്ളം കുതിച്ച് ചാടുന്നതും കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ ധോണി വെള്ളചാട്ടം മീൻ വല്ലം കുറേ ഡാമുകളിലൊക്കെ പോകണം ഡാമുകളിലൊക്കെ ഇപ്പോഴത്തെ ഡാം പണ്ടത്തെപ്പോലെ വെള്ളം മാത്രമല്ല അവടെ നമുക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് മലമ്പുഴ ഡാമിലാണെങ്കിലും പോത്തുണ്ടി ഡാമിലൊക്കെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും മുതിർന്നവർക്ക് പോയിട്ട് വിശ്രമിക്കാനാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ ഈ മഴക്കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഒരു കാഴ്ച്ച നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് പിന്നെ ഈ കുറച്ച് തണുപ്പൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ താമസിക്കാൻ വരാറുണ്ട് ഫോറസ്റ്റ് കാടുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ വരുമ്പോൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മലയോര പ്രദേശത്ത് പോയിട്ട് ആ മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണാൻ തന്നെ എന്താണ് നല്ല സമയമാണ് അപ്പോൾ വരുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്ത് നമുക്ക് എന്താണോ കാണേണ്ടത് അതിനനുസരിച്ച് പോകണം നമുക്കിപ്പോൾ മഴ കാടിലൊക്കെയാണ് നമുക്ക് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് തണുപ്പുള്ള ഈ സമയത്തോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം കാണാൻ പറ്റും കുറച്ച് മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്ന് കുറച്ച് മഴയൊക്കെ മഴവെള്ളം വെള്ളം ഒഴുകുന്നതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും നല്ല നല്ല സമയത്ത് നോക്കിയിട്ട് വരണം ഉത്സവങ്ങളൊക്കെ കാണണമെന്ന് ആണെന്നുണ്ടെങ്കിൽ ആനകളുടെ ഇതൊക്കെ പല പല വെടിക്കെട്ടും ഉത്സവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൾ ഒരു ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ വരുന്നതായിരിക്കും നല്ലത്